ഇനി കോഴി വളര്ത്തലിനെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് അവതരിപ്പിക്കട്ടെ കാരണം ആദ്യമായിട്ട് അതിനു നല്ല വൃത്തിയുള്ള അതായതെപ്പോഴും മുറിയെല്ലാം വൃത്തിയാക്കണം അവർ താമസിക്കുന്ന കൂട് അവിടെ ഒരു ചപ്പ് ചവറൊന്നിടാതെയും അതു പോലെ നീറ്റാക്കുകയെന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം ഇതുങ്ങൾക്ക് വല്ല പനിയോ തൂങ്ങം തൂങ്ങുന്ന സമയമൊക്കെ വരുമ്പോഴേക്കും ഞങ്ങൾ ഒരു പിന്നെ അവിടെ കൃഷി ആതായത് മൃഗ സംരക്ഷണം എന്നു പറഞ്ഞ ഓഫീസിൽ പോയിട്ട് മരുന്നു വാങ്ങിച്ച് അതിന് യഥാസമയങ്ങളില് കൊടുക്കും അതു പോലെ തന്നെ ചില ദിവസങ്ങളിൽ ഓരോന്നിനെയും പിടിച്ച് ഒക്കെ മരുന്നായിട്ടും ഗുളികയായിട്ടും വെള്ളമായിട്ടും അതുപോലെതന്നെ വിറ്റാമിന്ൻ്റെ ഒക്കെയായിട്ടുള്ള ഇത് അത് അതുപോലെ ആവശ്യത്തിന് ഭക്ഷണമെന്നു പറഞ്ഞാൽ പതിവായിട്ടു നമ്മൾ ഈ പുല്ല് സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊണ്ടു പോയിട്ടും അതുപോലെതന്നെ പിന്നെ ലെയര് മാഷെന്നു പറഞ്ഞാൽ ഒരു മുട്ട ഇടാനായിട്ടുള്ള കൂടുതലും മുട്ട കിട്ടാനായിട്ടുള്ള ഒരു പിന്നെ ഇതാണ് എന്തുവാ പിന്നെ ഈ കോഴിത്തീറ്റ അതും വാങ്ങിച്ചു കൊടുക്കും സമയാസമയങ്ങളില് വെള്ളം കൊടുക്കും അതു പോലെ കൂടിന് നല്ല വിസ്താരമുണ്ടേ അപ്പം എന്നാൽ ചെയ്യും ഇപ്പം എനിക്ക് കുറച്ചു കരിങ്കോഴികളുണ്ട് കരിങ്കോഴികളെ മാത്രം ഒരു കൂട്ടിലേക്കിടും അതു പോലെ മറ്റ് പല വിധത്തിലുള്ള പല കോഴികളെല്ലാം കൂടെ ചേര്ന്നു വേറൊരു കൂട്ടിലിടും അങ്ങനെ അവ അവര്ക്കു കുറച്ചും കൂടി പിന്നെ വികസിച്ച് അതായത് കുറച്ചും കൂടി ഇങ്ങനെ തിക്കായിട്ടിടാതെ വളരെ വിശാലമായിട്ടിടുന്നു അതുപോലെ ഭക്ഷണമൊക്കെ സമയാ സമയങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി നമുക്കതിന് പരിചരിക്കണമെന്നുണ്ടെങ്കിലും ഇത്രയും തീറ്റ കൊടുക്കുന്നതാണ് ഞങ്ങൾക്കുള്ളു അപ്പം അതു കൊണ്ടൊക്കെ ഉള്ളതു കൊണ്ടൊക്കെ അതുങ്ങളെ നോക്കി അതിനെ വളര്ത്തുന്നുണ്ട് അത്രയേ ഞാനിപ്പം പറയുന്നു